ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നൊരു കൂട്ടാണ് കേക്കുണ്ടാക്കുക എന്നുള്ളത് പക്ഷേ അത് പല പ്രാവശ്യം ശ്രമിച്ച് നോക്കിയിട്ടും ഇന്നുവരെ അത് ശരി ആയിട്ടില്ല അതിന് കറക്റ്റ് ആയിട്ട് അളവിൽ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് എല്ലാം വന്നാലും അത് നമ്മളത് അത് കുഴച്ച് പെറുക്കി അതെല്ലാം എടുത്ത് വെച്ച് വരുമ്പോഴ്ത്തേനും ആ നല്ല ആ സോഫ്റ്റായിട്ടൊന്നും ഇരിക്കുന്നില്ലത്രേം അതൊരു വലിയൊരു സങ്കടമുള്ളൊരു കാര്യമാണ് മറ്റുള്ള പല മറ്റ് പല കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ എങ്ങനേലൊക്കെ ഉണ്ടാക്കി ഒപ്പിച്ചെടുതെന്ന് പറഞ്ഞാൽ ഈ കേക്കെന്ന് പറഞ്ഞ ഒരു കൂട്ടിന് മാത്രം ഭയങ്കര പാടായിട്ടാണ് വരുന്നത് പിന്നേം പിന്നേം നമ്മൾ ശ്രമിച്ചാലും വളരെ ആഗ്രഹമുണ്ടത് പഠിക്കാൻ വേണ്ടീട്ട് പക്ഷേ അത് ഇത് വരെ അത് നടക്കാത്ത ഒരു കാര്യമായിട്ടാണ് കിടക്കുന്നത് വലിയ ഇനിയും ഇപ്പോഴും ക്ഷമ് ശ്രമിച്ച് ശ്രമിച്ച് കൊണ്ടിരിക്കുകാന്നുള്ളതല്ലാതെ അത് നമ്മളെ കൊണ്ട് മറ്റ് സാധനങ്ങൾ ഏത് കറിയോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന്ണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കണ്ട് കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞാലക്കെ ശരിയാകും പക്ഷേ ഇത് പല കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് കൂട്ടിലേക്കെത്താൻ പറ്റിട്ടില്ല അതിനകത്ത് ചേർക്കുന്നതിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നതാന്ന് തോന്നുന്നു അതാന്ന് ഇപ്പം ഒരു പാടായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല